ഞങ്ങളുടെ തോപ്പ്രാമുടി പ്രദേശത്തെ എല്ലാ സ്കൂളുകളും നല്ല സ്കൂളുകളാണ് സ്കൂളുകളിൽ നല്ല സ്കൂൾ കെട്ടിടങ്ങളും നല്ല ക്ലാസ് റൂമുകളും അവിടെ കുട്ടികൾക്ക് നല്ല ബെഞ്ചുകളും ഡെസ്ക്കുകളും കൊച്ചു കുട്ടികൾക്ക് കുഞ്ഞു കസേരകളും ഒക്കെയായി അതി മനോഹരമായാണ് സ്കൂളുകൾ ഒരുക്കിയിരിക്കുന്നത് പിന്നീട് സ്കൂളിൽ കുടിവെള്ള സൗകര്യം എത്തിച്ചിട്ടുണ്ട് ഗ്രാമ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും എല്ലാ സ്കൂളുകൾക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ആവശ്യമായ മൂത്രപുരകൾ വളരെ വൃത്തി ഉള്ളതും വളരെ ഭംഗി ആയിട്ടും സ്ഥാപിച്ചിട്ടുണ്ട് അവയൊക്കെ വൃത്തിയായി സൂക്ഷിക്കാനും സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങൾ സൗജന്യമായി നൽകുന്നുണ്ട് ഉച്ച ഭക്ഷണം വളരെ വിപുലമായ രീതിയിൽ ഓരോ ദിവസവും വ്യത്യസ്തമായ കറികളൊക്കെ ഉണ്ടാക്കി കൊടുത്തു വളരെ ഭംഗിയോട് കൂടി കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നല്കുന്നുണ്ട് അത് എല്ലാവരും കുട്ടികളും മാതാപിതാക്കളും വളരെ സന്തോഷത്തോടെയാണ് അവ എല്ലാം സ്വീകരിക്കുന്നത് തങ്ങളുടെ കുട്ടികളെ ഏറ്റവും നല്ല സ്കൂളുകളിൽ വിട്ടു പഠിപ്പിക്കുവാനാണ് ഓരോ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നത് എന്നാൽ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ ഫീസ് കൊടുത്തു പഠിപ്പിക്കാൻ പറ്റുന്ന മാതാപിതാക്കൾക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും അല്പം സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഗവൺമെൻ്റ് സ്കൂളിലും അതുപോലെ തന്നെ മാനേജ്മെൻ്റ് സ്കൂളുകളിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഇവയൊക്കെ ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായി പഠിപ്പിക്കുക നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് വളർന്നു വന്നത് വളരെ ദൂരം നടന്നും വളരെ കഷ്ടപ്പെട്ടും പഠിച്ചു എന്നാൽ ഇന്ന് നമ്മുടെ മക്കൾക്ക് എല്ലാ സൗകര്യമുള്ള സ്കൂളുകളും യാത്രാ സൗകര്യങ്ങളും എല്ലാമുണ്ട് അത് നമുക്ക് ഒത്തിരി സന്തോഷമാണ് കുട്ടികൾ നന്നായി പഠിച്ചു നല്ല ഒരു ജോലി നേടി നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും ഉപകാരികളായി ജീവിക്കുവാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ സ്കൂളുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നുണ്ട് നമ്മുടെ ഈ പ്രദേശത്തെ സ്കൂളുകളിൽ ഇങ്ങനെ മെച്ചപ്പെടുത്തുവാൻ പ്രത്യേക കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എല്ലായിടത്തും തന്നെ നല്ല പുതിയ കെട്ടിടങ്ങളും അവിടെ സ്കൂളിലെ എല്ലാ സൗകര്യങ്ങളുമുണ്ട് അതുകൊണ്ട് വളരെ സന്തോഷത്തോടും വളരെ തൃപ്തികരമായിട്ടാണ് നമ്മുടെ കുട്ടികളും മാതാപിതാക്കളും ഈ സ്കൂളുകളെ കാണുന്നത് സ്കൂളിൽ വിടുന്ന കുട്ടികളെ കുറിച്ചു മാതാപിതാക്കൾ ആകുലതകൾ ഇല്ല എന്നുള്ളതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോൾ പഠിക്കാൻ പോയി കഴിയുമ്പോൾ അവർക്ക് എന്തു ആവശ്യം ആയാലും അവർക്ക് സ്കൂളിൽ നിന്ന് തന്നെ അവർക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കിട്ടുന്ന ഒരു കാലമാണ് ഇപ്പോൾ നമ്മുടെ സ്കൂളുകളെ കുറിച്ചും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും വളരെ അഭിമാനവും സന്തോഷവുമാണ് ഉള്ളത്